മലയാളമെന്നു പറയുമ്പോൾ നമുക്ക് സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് ഭാഷകള് ഭാഷകളല്ല ഒരുപാട് പദങ്ങളടങ്ങിയ ഒരു ഭാഷയാണ് മലയാളം എല്ലാവർക്കും പെട്ടെന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ഭാഷയാണ് മലയാളമെന്നു പറയുന്നത് അതുകൊണ്ടുതന്നെ മലയാളം സംസാരിക്കുമ്പോഴും അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എഴുതുമ്പോഴാണെങ്കിലും ചില വാക്കുകൾ നമ്മൾ എഴുതുമ്പോൾ ഇപ്പോൾ ഉത്സവമെന്നെഴുതുമ്പോൾ നമ്മളൊക്കെ ചിലപ്പോൾ ഉത്സവമെന്നെഴുതുന്നത് ശരിക്കുള്ള ഉത്സവമെന്നെഴുതുന്നത് വേറൊരു വാക്കും നമ്മളെഴുതി വരുമ്പോൾ വേറെ അക്ഷരത്തെറ്റുണ്ടാവും അതാണ് കൂടുതൽ എഴുതുമ്പോൾ പറ്റാറുള്ള ബുദ്ധിമുട്ടെന്നു പറയണത് അക്ഷരത്തെറ്റുണ്ടാകും ശരിക്കുള്ള അക്ഷരായിരിക്കില്ല നമ്മൾ എഴുതുന്നത് അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് അതേപോലെ സംസാരിക്കുമ്പോൾ ചില വാക്കുകൾ നാവിനു വഴങ്ങാതെയാവും ഈ അക്ഷരസ്ഫുടത എന്നൊക്കെ പറയില്ലേ അതാണ് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്നു പറയുന്നത് ചില വാക്കുകൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഉളുക്കും നാവുളുക്കുകയെന്നൊക്കെ പറയില്ലേ അത് സംസാരിക്കാൻ കിട്ടാണ്ട് വരിക ചില വാക്കുകൾ സംസാരിക്കാൻ പറ്റാതാവുക അതാണേറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് അത് എല്ലാവർക്കും ഉള്ള ബുദ്ധിമുട്ടാണ് ചിലവർക്ക് ഒരുപക്ഷെ ആ ഭാഷ ചിലപ്പോൾ പറയാൻ കിട്ടില്ല ചിലപ്പോൾ വാക്ക് പറയുമ്പോൾ നാവ് ഉളുക്കി വേറെന്തെങ്കിലും തെറ്റായിട്ട് പറയും അതാണ് സംസാരിക്കുമ്പോൾ മലയാളത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്